നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ പല വര്ഗ്ഗ പലവ്യഞ്ജനങ്ങൾ നമ്മുടെ അരിയാഹാര ആഹാര സാധനങ്ങളും എല്ലാം മൊത്തമായും ചില്ലറയായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അടുത്ത കുറെ കാലത്തായിട്ട് പലചരക്കുകള് ഉള്ള പിന്നെ ഇതിലും അതുപോലെ എല്ലാത്തിനും വളരെയധികം മാറ്റമാണ് വില ചേയ്ഞ്ചസാണ് വന്നിട്ടുള്ളത് അതുപോലെ ഓണ്ലൈന് ഷോപ്പിംഗ് രണ്ട് ദോഷവശവും ദോഷവശവും ദോഷവശങ്ങളും ഉണ്ട് ഗുണവും ഉണ്ട് കാരണം പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൽക്കുന്നിടത്ത് ആ സംഭവം കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് സമയത്ത് അതേസമയത്തിൽ കൊണ്ടുവരുന്ന സാധനമെല്ലാം നല്ലതായിരിക്കണമെന്നില്ല പിന്നെ ജങ്ക് ഫുഡുകളുടെയൊക്കെ ഉപയോഗം കൂടുന്നുണ്ട് മനുഷ്യന്റെ മുഖവും സംസ്കാരത്തിന്റെ ഒരു ഇതിനെ എടുത്തു കാണിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ മനുഷ്യൻ ജോലി ചെയ്യുന്നതിനുള്ള ആ ഒരു ആ കഴിവില്ലാതാകുന്നുയെന്ന് മാത്രവല്ല അലസത കൂട്ടാനും ഒക്കെയിത് കാരണമാകുന്നു പണം ഉണ്ടെങ്കില് എന്തും നടക്കുന്നൊരു കാലമാണിത് ആ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യന് കാലുവെച്ച് ചുവട് വെച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ കൊള്ളാം ഓണ്ലൈന് അത്യാവശ്യം കാര്യങ്ങള്ക്ക് കൊള്ളാം പക്ഷെ എല്ലാത്തിനും ഓണ്ലൈനിനൊക്കെ ആശ്രയിക്കുവാനാണെന്നുണ്ടെങ്കില് അതെത്രമാത്രം നമുക്ക് നല്ലത് ഗുണകരമാണെന്ന് പറയാനൊക്കില്ല